ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകൾ ഉണ്ട് കോഴിക്കോട് നിന്ന് പ്രവീൺ കാരണം അവർടെ ഡാൻസ് പ്രോഗ്രാമുകളാണ് ചെറിയ ചെറിയ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ അപ്പം അങ്ങനെ ഉള്ള പ്രൊഗ്രാ യൂട്യൂബ് ചാനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പക്ഷെ എല്ലാവരുടെയും തീം വേറെ ആണ് അതിൽ ഭാഷയെ പ്ര എന്താ പറയുക അവർ പരാമർശിക്കുന്നില്ല അവർ ഒന്നുകിൽ ഹെയറിനെ കുറിച്ചോ അല്ലെ ബ്യുട്ടി ടിപ്സോ അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉള്ള ഓരോ ഒരോർത്തർക്കും വ്യക്തി പരമായ ഓരോ രീതിയിലാണല്ലോ ഇൻട്രസ്റ്റ് അതിനനുസരിച്ചുള്ള പിന്നെ യൂട്യൂബ് ചാനലുകളായിരിക്കും ഞാൻ പിന്നെ ഈ ഡാൻസിനെ കുറിച്ചുള്ള യൂട്യൂബ് ചാനലുകൾ റീൽസ് പോലെ ഉള്ളതാണ് കാണാറ് അതിൽ ഭാഷ വരുന്നില്ല പിന്നെ നമ്മുടെ ഭാഷയെ കുറിച്ചാണെങ്കിൽ അഭയ ഹിരൺമയി പാടിയ പാട്ടുണ്ടല്ലോ നമ്മുടെ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളേ അലുവ മണക്കണ കോഴിക്കോട് ആ പാട്ട് എനിക്ക് ഇഷ്ടാ പാട്ട് പാടാൻ അറിയില്ല പക്ഷെ ഓര് പാടിയത് നമ്മുടെ നാട്ടിനെ കുറിച്ചാകുമ്പോൾ നമ്മുടെ കാര്യത്തെ കുറിച്ചൊക്കെ ആകുമ്പം അത് കേൾക്കാനിഷ്ടാ നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് ഒരാൾ പറയുമ്പോൾ ഇതാകുമ്പോഴൊക്കെ നമുക്ക് നല്ലതല്ലേ കേൾക്കാൻ പിന്നെ നമ്മളുടെ നാടിനെ കുറിച്ച് ഓരോരുത്തർ പിന്നെ യൂട്യൂബ് ചാനലിൽ കാരണം ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തുറമുഖാ തുറമുഖമുള്ളതാണ് നമ്മുടെ കോഴിക്കോട് റെയിൽ വേ ആണെങ്കിൽ എല്ലാ സ്ഥലത്തിലേക്കും റെയിൽ വേ പോകുന്നതും കോഴിക്കോട് നിന്നാണ് അപ്പം നമ്മളെ കുറിച്ച് നമ്മൾ ഇതിനെ കുറിച്ച് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടുമല്ലോ